മോനപ്പാ എൻ്റെ ആധാർ കാർഡ് നഷ്ടപ്പെട്ടല്ലോ അത് പുതിയൊരു ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം എടുക്കുന്നതിന് എന്ത് എവിടെയാണ് നമ്മൾ ചെയ്യുക എടുക്കേണ്ടത് ആധാർ കാർഡിനു അപേക്ഷിക്കുന്നതിന് ഏറ്റോം അടുത്തുള്ള ആധാറിന് എൻറോൾമെൻറ് സെൻ്റർ എവിടെയാണെന്ന് അറിയാമോ എനിക്കതൊന്ന് പറഞ്ഞു തരാമെങ്കിൽ എനിക്കത്രേയും വേഗം പോയി എത്രേം അത്യാവശ്യമുള്ളൊരു കാര്യമാണ് എന്താന്ന് വെച്ചാൽ എനിക്ക് പാസ്പോർട്ട് എടുക്കേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഈ അധാർ കാർഡ് ഉടനെ എത്രയും വേഗം എടുക്കേണ്ടതാണ് അതിനു എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു തരാമോ എനിക്ക് ആ സാഥ് ഓഫീസിൻ്റെ പ്രവർത്തിക്കുന്ന എൻറോൾമെൻറ് സെൻ്റർ എവിടെയാന്നെന്നു കണ്ടെത്താൻ എന്നെ ഒന്ന് സഹായിക്കാമോ മോനപ്പാ ഏറ്റവും ഉപകരണവും അതിനു എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് ഉണ്ടാക്കി തരണം എന്ത് പാ പേപ്പേർസൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം ഞാൻ മറന്നു പോയി അതുകൊണ്ട് എത്രയും വേഗം അത് ഒണ്ടാക്കി തരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ മോനപ്പന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആർക്ക് ഉണ്ടായിട്ടുണ്ടോ മോനപ്പന് എന്തെങ്കിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്നു ഒന്ന് പറയാമോ ഞാൻ അതൊന്നു അതിനെ ഞാൻ അവരോട് ഞാൻ ചോദിച്ചു മനസിലാക്കി കൊള്ളാം കൊള്ളാം മോനപ്പന് എത്രയും വേഗം തന്നെ കണ്ടെത്തണം എനിക്കത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് നാളെ തന്നെ എനിക്കത് സ സാധിച്ചു തരണം എന്നുള്ളത് ഞാൻ മോനപ്പനോട് പ്രത്യേകം പറയുകയാണ് എനിക്ക് എത്രയും വേഗം തരണം അല്ലെങ്കിൽ എനിക്കെൻ്റെ പാസ്പോർട്ട് എടുക്കാനായിട്ട് എൻ്റെ യാത്ര മുടങ്ങും പാസ്പോർട്ട് വിദേശത്തേക്ക് പോകാനുള്ളതാണ് അതുകൊണ്ട് എത്രയും വേഗം എനിക്കത് എടുത്ത് തരണം എന്നുള്ളത്